ഓണം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ദേശീയ ആഘോഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഓണം പട്ടം താണുപിള്ള മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഓണത്തെ ഒരു ദേശീയ ആഘോഷമാക്കി മാറ്റിയത് അതുകൊണ്ടുതന്നെ ഓണം എന്ന് പറയുന്നത് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ അല്ലെങ്കിൽ ഏത് ജില്ലയിലെന്നോ ഒന്നും നോക്കാതെ എല്ലാവരും ആഘോഷിക്കുന്നൊരു പരിപാടിയാണ് ഓണം വീട്ടിൽ സദ്യ ഉണ്ടാക്കുക അതിലേക്ക് കുറേ അധികം ഉപ്പേരികളും കറികളും പായസങ്ങളൊക്കെ ഉണ്ടാവും അതിൽ ചിലപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ കൂടിയും മറ്റുള്ളവർ നമ്മളെ ക്ഷണിക്കുകയും അത് ഏത് മതം അല്ലെങ്കിൽ ഏത് സ്ഥലത്തുനിന്ന് വരുന്നു എന്ന് നോക്കാതെ നമുക്ക് ആഘോഷിക്കാൻ പറ്റിയൊരു പരിപാടിയാണ് ഓണം അങ്ങനെ ഇയാൾ ഇന്ന ആഘോഷിക്കുന്നില്ല അല്ലെങ്കിൽ അത് നിയമത്തിന് എതിരൊന്നുമല്ല ദേശീയ ആഘോഷങ്ങൾ ആഘോഷമാണ് എങ്കിൽ കൂടിയും ഓണം എന്ന് പറയുന്നത് കേരളത്തിൽ എല്ലാവരും ആഘോഷിക്കുന്നുണ്ട് അതിൽ സമൂഹപരമായിട്ടോ അല്ലെങ്കിൽ മതപരമായിട്ടൊന്നും ഒരു വ്യത്യാസവും ഇല്ല പിന്നെ ബക്രീദ് ആണെന്നുണ്ടെങ്കിൽ കൂടിയും പൊതുവേ മുസ്ലിങ്ങളാണ് ആഘോഷിക്കുന്നത് എന്നുണ്ടെങ്കിൽ കൂടിയും അതിനും മുസ്ലീങ്ങളുടെ വീട്ടിലേക്ക് ബാക്കിയുള്ളവർ വന്നിട്ട് ഭക്ഷണം കഴിക്കുക പിന്നെ അതെപോലെ തന്നെ അവരോടൊപ്പം ഒത്തുചേർന്നിട്ട് ആഘോഷിക്കുക എന്നുള്ളത്